നഗരങ്ങളിൽ വികസന കാര്യങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിലും ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഗ്രാമങ്ങളിലിപ്പോൾ ഒരുപാട് വികാസകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്കൂ ഒരുപാട് സ്കൂളുകളും മുമ്പ് നഗരങ്ങളിലാണ് അധികം സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ സ്കൂളുകൾ ആശുപത്രികൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നഗരത്തെ പോലെ തന്നെയാണ് ഗ്രാമങ്ങളിലും ഉള്ളതും എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നഗരങ്ങളിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഗ്രാമങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളായിരുന്നാലും എല്ലാം ഇപ്പോൾ ഗ്രാമങ്ങളിലും ദാ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട് പിന്നെ ഗ്രാമീണ ജനത നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതു അവിടുത്തെ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളിലൊക്കെ ആകൃഷ്ടരായാണ് അവരങ്ങോട്ടൊക്കെ പോകുന്നത് പക്ഷെ എന്നിരുന്നാലും അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഗ്രാമങ്ങളിലോട്ട് താമസിക്കാൻ വരുന്നവരും ഉണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് എങ്കിലും കുറച്ച് ഇത്തിരി കൂടുതലായിട്ട് ആശുപത്രി സംവിധാനങ്ങൾ ഇതെല്ലം നോക്കിയാണ് പിന്നെ ആൾക്കാർ ജോലിക്ക് പോകാനുള്ള സൗകര്യം ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് അവർ എല്ലാവരും ഗ്രാമ നഗരങ്ങളിലോട്ട് ഗ്രാമങ്ങളിൽ നിന്നും അങ്ങോട്ട് പോകുന്നത് പക്ഷെ റിട്ടയർമെൻ്റിനൊക്കെ ശേഷം ഒരുപാട് പേർ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചും വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ ആശുപത്രികളായിരുന്നാലും സ്കൂളുകളായിരുന്നാലും എല്ലാം ഇപ്പോൾ രണ്ടും രണ്ടിടത്തും ഒരുപോലെ തന്നെയാണുള്ളത്